നമ്മളിപ്പോൾ കോഴികുഞ്ഞുങ്ങളെ വാങ്ങുകയാണെങ്കിൽ സാധാരണ നമ്മൾ ചെറിയ കാർഡ്ബോർഡ് പെട്ടിക്കകത്താണ് വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോക്സുകളുണ്ട് അതിനൊക്കെ വായുസഞ്ചാരവും ഒക്കെ ഉണ്ടാവും അതുപോലെന്നെ ഒരുപാട് കോഴികളെ നമ്മൾ ഒരു ഒരു കാരണവശാലും അടിക്കി അടിക്കി കൊണ്ടുപോവരുത് കാരണം കോഴിക്ക് എപ്പോഴും താപനില ഹീറ്റ് ചൂട് കൂടുതലാണ് അപ്പം ഇത് ചൂട് കുടി കഴിഞ്ഞാൽ ഇത് ചത്ത് പോകാനുള്ള സാധ്യത വളരെ അധികമാണ് അതുകൊണ്ട് നമ്മളെപ്പോഴും കോഴികളെ വളർത്തുമ്പോൾ കൊണ്ടുവരുമ്പോൾ ഫാമിൽ നിന്ന് വളരെ ഫാമിൽനിന്നു നമ്മൾ കൊണ്ടുവരുമ്പോൾ നമ്മൾ ഒന്ന് കാർഡ്ബോർഡ് ബോക്സിലാണ് കൊണ്ടുവരുന്നതെങ്കിൽ അതിനു ഹോളുകളിട്ട് വായുസഞ്ചാരം ഉറപ്പുവരുത്തി നമ്മൾ വീട്ടിലേക്കു കൊണ്ടുവരഗയു കൊണ്ടുവരാൻ പാടുള്ളു അതുപോലെ തന്നെ നമ്മളിപ്പോൾ കോഴി കർഷ കുഞ്ഞുങ്ങളെ വിരിച്ച് കൊടുക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ വാങ്ങി അവര് നേരിട്ട് കൊണ്ടുവരുകയാണെങ്കിലും ആ കോഴി ഇടെ കുഞ്ഞുങ്ങള് വായുസഞ്ചാരമില്ലാത്ത കുടുകളിലാണെങ്കില് നമ്മളൊരു കാരണവശാലും അത് വാങ്ങാൻ പാടില്ല അത് നമ്മളുടെ വീട്ടിൽ നിന്നാണ് രണ്ടുദിവസലേ മൂന്നുദിവസത്തിനുള്ളിൽ അത് ചത്തു പോകാനാണ് ചാൻസ് നമ്മളെപ്പോഴും കോഴികളെ വളർത്തുമ്പോൾ അതിന് ആവശ്യമായ എ വായുസഞ്ചാരം ഉണ്ടായിരിക്കണം കൂടിന് കൂടിനാണേലും കുറച്ച് വായുസഞ്ചാരമുള്ള ഓപ്പൺ ആയിട്ടുള്ള കൂടായിരിക്കണം നമ്മൾ തെരഞ്ഞെടുക്കേണ്ടത് അതിൻ്റെ സൈഡില് ഗ്രീനെറ്റോ മാക്സിമം ഉപയോഗിക്കാതെ ഇരിക്കുക ഉപയോഗിച്ച വെച്ചാൽ തന്നെ ഒരു രണ്ടടിയോ മൂന്നടിയോ പൊക്കത്തിൽ മറ്റുള്ള ഇഴജന്തുക്കളോ ഒന്നും കയറാത്ത കയറാതിരിക്കാനുള്ള മാർഗമേ ഉപയോഗിക്കുകയുള്ളൂ മേലിലോട്ടുള്ള നന്നായിട്ട് വായുസഞ്ചാരമുള്ളടുത്തെ നമ്മൾ എപ്പോഴും കോഴികളെ വളർത്താൻപാടുള്ളു അതുപോലെ തന്നെ ഒരു കൂടിൽ ഒരു സ്ക്വയർ ഫീറ്റാണ് ഒരു കോഴിക്ക് ആവശ്യമായ സ്ഥലം അതിനനുസരിച്ചുള്ള കൂടുകളിലെ നമ്മൾ കോഴികളെ വളർത്താൻപാടുള്ളു ഒരു സ്ക്വയർ ഫീറ്റല്ലേൽ ഒന്നര സ്ക്വർ ഫീറ്റ് രണ്ട് സ്ക്വർ ഫീറ്റാണേലും കുഴപ്പമില്ല ഒരു കോഴിയെ എന്ന അടിസ്ഥാനത്തിലെ നമ്മൾ കോഴികളെ വളർത്താൻ പാടുള്ളു